അതെല്ലോ ആ എങ്ങനെ ഞങ്ങളുടെ അടുത്തുനിന്ന് കൂടുതൽ പോവുന്നത് ഇപ്പം നെയ്യാണ് ആ ചിലത് ഞങ്ങൾ സാധാരണ മെഷീനിൽ അല്ല ഇത് കടഞ്ഞെടുക്കുന്നത് തൈര് സാധാരണ പോലെ തന്നെ കടഞ്ഞെടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാനുള്ള പിന്നെ അതിൽ കൂട്ടുകൾ ഒന്നും ഇല്ല നെയ്യിൽ അതുകൊണ്ടാണ് നെയ്യ് കൂടുതൽ ഞങ്ങൾക്ക് സെയിൽ വരുന്നത് നിങ്ങൾക്കിപ്പോൾ എന്ത് വാങ്ങാനാണ് നിങ്ങൾ വിളിച്ചത് ഞങ്ങൾക്ക് പല പ്രൊഡക്റ്റുകളുണ്ട് ഇവിടെ ചീസ് ഉണ്ട് തൈരുണ്ട് തൈരുണ്ട് ആ അതിൽ നെയ്യുണ്ട് നെയ്യാണ് കൂടുതൽ പോവുന്നത് പിന്നെ പാൽ ഇത് കൊണ്ടുള്ള പല ഉൽപ്പന്നങ്ങളും ഇവിടെയുണ്ട് അതിൽ നെയ്യ് കൂടുതൽ സെയിലിങ്ങ് വരുന്നുണ്ട് കുട്ടികൾക്കത് കൊടുക്കാൻ ഇവിടുന്നാണ് നേരിട്ട് ആൾക്കാർ വന്ന് വാങ്ങിച്ച് കൊണ്ടുപോവുന്നത് ആ അപ്പം നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾ എന്നാൽ ഒരു ദിവസം നേരിട്ട് വരുകയാണെങ്കിൽ ഞങ്ങളുടെ ഫാക്ടറിയും കാണാം ഇത് ഇവിടുത്തെ ഉൽപ്പന്നങ്ങളെല്ലാം പരിചയപ്പെട്ടിട്ടത് പോവാം എന്നിട്ട് നിങ്ങൾക്ക് തൃപ്തികരമെങ്കിൽ പിന്നെ എങ്ങനെയാണ് വേണ്ടത് എന്ന് വെച്ചാൽ ചെയ്യാം ഡെലിവറി ഉണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം നേരിട്ട് വരൂ വന്ന് ഫാക്ടറി ഒക്കെ കണ്ട് നിങ്ങൾ ഉൽപ്പന്നം വാങ്ങി കൊണ്ടുപോയിട്ട് നിങ്ങൾക്കത് നല്ലതാണെന്ന് തോന്നി വെച്ചാൽ നേരിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഡെലിവറി ചെയ്ത് തരാം ആയിക്കോട്ടെ ഓക്കെ താങ്ക് യൂ എന്നാൽ നിങ്ങൾ വരൂ നിങ്ങൾക്ക് സമയം പോലെ നിങ്ങൾ എപ്പോഴെങ്കിലും ഫാക്ടറിയിലേക്ക് വരൂ ആ ആയിക്കോട്ടെ വിളിച്ചിട്ട് വന്നാൽ മതി കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യൂ മ് ശരി